നമ്മൾ ഇപ്പോൾ ഏതു ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ അത് സത്യസന്ധതയോടെ കൂടി അത് ചെയ്യേണ്ടതാണ് ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു അടുക്കള പണി ചെയ്യുകയാണെങ്കിൽ തന്നെ വീട്ടിൽ ഇപ്പോൾ നമുക്ക് മരുമക്കൾ ഉണ്ട് വിചാരിക്കുക മക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അവർക്ക് ചെയ്യാൻ അത്ര താൽപ്പര്യം ഉണ്ടാവില്ലായിരിക്കും പക്ഷേ നമ്മൾ അവർക്ക് താൽപ്പര്യം ഇല്ലയെന്ന് വച്ച് തന്നെ അവർ ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നമ്മൾ ആ ജോലി മുന്നോട്ട് ഇറങ്ങി നമ്മൾ ചെയ്യുക ഒരു പ്രാവശ്യം അവർ ജോലി ചെയ്യുന്നത് തെറ്റുമായിരിക്കും തെറ്റിയാൽപ്പിന്നെ രണ്ടാമത് നമ്മൾക്ക് അവരെ പറഞ്ഞാൽ അതും മനസ്സിലാക്കി കൊടുക്കാൻ ഉള്ള കഴിവ് വേണം അതുപോലെ അവരോട് ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല കാരണം എന്താണെന്ന് വച്ചാൽ നമ്മൾ അത് അവർക്ക് ചെയ്തു കാണിച്ച് കൊടുക്കും ഇന്ന ജോലി ഇന്ന പോലെ ചെയ്യണം എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം ഒരു വീടായാൽ പല പണികളുണ്ടാവും ഒരുപാട് പണികൾ ഉണ്ടാവും ഒരു കുടുംബത്തിൽ അതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ തന്നെ അവർ മാറി നിൽക്കാനും ഉള്ള അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരുടെ ഇത് നോക്കരുത് നമ്മൾ ചെയ്യാനുള്ള പണി നമ്മൾ അത് നല്ല പവർ ആയിട്ടും നല്ല ഡീസൻ്റ് ആയിട്ടും ചെയ്തു കാണിക്കുക ഒരു ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ തന്നെ വന്ന മക്കൾക്ക് അത് ചി ലപ്പം ചെയ്യാൻ അറിഞ്ഞിട്ട് ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ നമ്മൾ അവരെ അത് കാണിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ചുമതല നമ്മുടേതാണ് ഒരു പക്ഷേ അവർക്ക് പറ്റില്ലയെന്ന് പറ്റില്ലയെന്ന് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ അത് ചെയ്തു കാണിച്ച് കൊടുക്കുക ഇന്ന രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാം നമ്മൾ അത് കാണിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കുക അതേപോലെ പല പല കാര്യങ്ങളും ഒരു തുണി അലക്കാൻ ആയാലും നമ്മൾ വാഷ് ചെയ്യാൻ ആയാലും അതേപോലെ അടിച്ചു വാരേണ്ടത് ഇത് ആയാലും ഒരു ഭാഗം തുടയ്ക്കേണ്ടത് ആയാലും അത് ഇപ്പം കെട്ടിക്കൊണ്ട് വന്ന മക്കൾക്ക് അത് ചെയ്യണം എന്ന് ഉണ്ടാവില്ലായിരിക്കും അവർക്ക് അറിയില്ലായിരിക്കും അപ്പോൾ അത് നമ്മൾ മുതിർന്ന കാർന്നവന്മാര് നമ്മൾ അത് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അതേപോലെ അവരോട് ഒരിക്കലും ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ ഒന്നും ഇട വരുത്തരുത് നമ്മൾ കുറേ ഡീസൻ്റ് ആയിട്ട് തന്നെ അവരോട് പെരുമാറി ജോലികൾ ഒക്കെ നമ്മൾ അവരെക്കൊണ്ട് ഇപ്പോൾ സാവധാനം പറഞ്ഞ് സന്തോഷത്തോടുകൂടി അവരെക്കൊണ്ട് ചെയ്യിക്കാൻ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ് അന്യ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ പഠിച്ചുകൊണ്ട് നടക്കുകയായിരിക്കും അതുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാൻ ചിലപ്പം താല്പര്യം ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ അവർക്ക് അറിയുകയും ഉണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് നമ്മൾ സാവധാനം പറഞ്ഞ് എല്ലാം അവരെക്കൊണ്ട് പതുക്കെ പതുകെ ഓരോന്ന് ചെയ്യിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ് അത് നമ്മുടെ ഉത്തരവാദിത്വം ആണ് അല്ലാതെ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ടോ വഴക്കിനു പോയിട്ടോ അവരെ തല്ലിയിട്ടോ കുത്തിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല നമ്മൾ അത് നല്ല വൃത്തിയോടുകൂടി അതു ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കണം അതേപോലെ മക്കളെ വളർത്തേണ്ട കാര്യം ആയാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മളെ മക്കളെ വളർത്താനും അവരെ പഠിപ്പിക്കാനും അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാനും ഒക്കെ നമ്മൾ നോക്കേണ്ടതാണ് അതിന് നമ്മൾ മക്കളോട് ആയാലും നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ആയാലും നമ്മുടെ അതിന് ഒരു ഇട വരുത്തരുത് നമ്മൾ അതേപോലെ കുടുംബത്തെ കാര്യങ്ങളായാലും കാർന്നവന്മാർ ആയാലും മക്കൾ ആയാലും പരസ്പരം സന്തോഷത്തോടും ഒക്കെ സഹിച്ച് ജീവിക്കാനുള്ള ഒരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാവണം അതിലൊരു ജോലി ഭാരം കൂടിയെന്നും പറഞ്ഞ് അതിനെപ്പറ്റി നമ്മൾ ദേഷ്യപ്പെടുകയോ അവരെ വിമർശിക്കുകയോ ഒന്നും ചെയ്യാൻ ഒരു ഇട വരുത്തരുത് നമ്മുടെ ഒരിക്കലും